ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ കറണ്ടു ബില്ല് വളരെയധികം കൂടുതലാണ് അധികം ചിലവുകളോ അങ്ങനെയൊന്നും വരാഞ്ഞിട്ടുപോലും കറണ്ടു ബില്ല് ഭയങ്കരമായിട്ട് കൂടുകയും ബില്ല് വരുമ്പോൾ മൂന്ന് ആറായിരം ഏഴായിരം ആവൊരു റെയ്റ്റൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയാൻവേണ്ടി നമ്മൾ ആ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് അവരെ ഇത് പേപ്പറടിച്ച് എന്തുകൊണ്ട് ഇതിങ്ങിനെ കറണ്ട് ബില്ല് കൂടി ഇത്രയും വന്നു എന്നൊക്കെ ചോദിക്കാനും അതിൻ്റെ കാരണം തിരക്കി അതു പരിഹരിക്കാനും കെ എസ് ഇ ബിക്കാർക്ക് കഴിയണം പിന്നെ ജി എസ് ടി ആയിട്ടും ആയിട്ടും അങ്ങനെയെല്ലാം ഒരുപാട് ക്രമക്കേടുകൾ വരുന്നുണ്ട് ഒരുപാട് ക്രമക്കേടുകളെല്ലാം വരുന്നുണ്ട് അതേന്നെല്ലാം അത് പരിഹരിക്കാനും അങ്ങനെ കൂടുതൽ ബില്ല് വന്നാലത് കെ എസ് ഇ ബിയിൽ ഇൻഫോം ചെയ്യാനും അതിൻ്റെ കാരണമെന്താണെന്ന് അന്വേഷിക്കാനും അങ്ങനെയെല്ലാം അന്വേഷിച്ച് കണ്ടുമറിഞ്ഞ് ചെയ്യുകയൊക്കെവേണം ചെയ്യാൻ